മൃഗ സംരക്ഷണത്തിലെ കർഷകർക്ക് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് ഈ തീറ്റ പുല്ല് കിട്ടാത്ത അവസ്ഥയും പിന്നെ സൊസൈറ്റിയിൽ നിന്ന് ഇവർക്ക് എന്താ പറയാ കാലിത്തീറ്റ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടാത്ത അവസ്ഥയും വരുമ്പോഴാണ് മൃഗ സംരക്ഷണത്തിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് കാരണം പുല്ലില്ലാണ്ട് മൃഗത്തെ അതായതിപ്പം കാലികളെ നോക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉള്ളത് കാരണെന്താന്നു വെച്ചാൽ അവർക്ക് മെയിനായിട്ട് പുല്ലാണ് വേണ്ടത് അപ്പോൾ തീറ്റ പുല്ല് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് തിന്നാനുള്ള ഇതും കിട്ടും നമുക്കത് വേണമെങ്കിൽ വിൽപ്പനയ്ക്ക് വേക്കോം ചെയ്യാം നമുക്കത്യാവശ്യം സ്ഥലോം കാര്യങ്ങളൊക്കെ വേണം അപ്പം ഇതാണ് മെയിനായിട്ടുള്ള ഒരു പ്രശ്നംന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ റെഡിയാവു ആണെങ്കിൽ നമുക്കതിനെയൊക്കെ എന്തപറയ്യാ രക്ഷപെട്ട് നമുക്ക് നല്ല രീതിയിൽ പശുവളർത്തലും പോത്തിനെ വളർത്തലും എല്ലാ കാര്യങ്ങളും നമുക്കടിപൊളിയായിട്ട് ചെയ്യാൻ തന്നെ പറ്റും ഇപ്പം ഞാനിപ്പം എവിടെങ്കിലും പോയിക്കഴിഞ്ഞാൽ ഇവിടെ താഴെയുള്ള ഒരു ചേട്ടായിയാണ് വന്നിട്ട് പശൂനേം കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പം ആ പുള്ളി നല്ലോണം നോക്കേം ചെയ്യും ഇപ്പം ഞാനില്ലാത്ത ഒരു സമയമാണെങ്കിലും പുള്ളി മൃഗത്തെ നല്ലോണം കാലികളെ നല്ലോണം അഴിച്ച് വിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തുക്കൊടുക്കുന്നത് പുള്ളിയാണ് ഇപ്പം മോശം അനുഭവംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെയാണ് എൻറ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ